ഹായ് എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ആ ഫ്രൈഡ് റൈസാണ് മിക്സഡ് ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും അതാണ് വേണ്ടത് നല്ലൊരു ടേസ്റ്റിയാണ് ഇവിടുത്തെ മിക്സഡ് ഫ്രൈഡ് റൈസ് എഗ്ഗും ചിക്കനും എല്ലാം ഉണ്ടല്ലൊ പിന്നെ അത് നല്ല റൈസുമാണ് നല്ല വെന്തിട്ടുള്ള റൈസാണ് പിന്നേ എന്താ ചില്ലി ചിക്കൻ അതുപോലെ നല്ല ബോൺലെസ്സ് മതിയേ ചിക്ക് ചില്ലി ചിക്കൻ ബോൺ ബോൺലെസ്സ് ചില്ലി ചിക്കനാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കുടിക്കാനായിട്ട് ഞാൻ സ്ഥിരം ഇവിടെ നിന്ന് കുടിക്കാറുള്ള ഓപ്റ്റ് ചെയ്യാറുള്ള എന്താ നമ്മുടെ ആ ഓറഞ്ച് ജൂസ് മതി ഇത് മൂന്നും മതി കേട്ടോ ഇത് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം ദം ബിരിയാണിയാണ് ഇപ്പോൾ പക്ഷേ മിക്സഡ് ഫ്രൈഡ് റൈസ് മതി എനിക്ക് ദം ബിരിയാണി ഇപ്പോൾ നിലവിൽ വേണ്ട പക്ഷേ ഇവിടുത്തെ ഈ ഹോട്ടലിലെ ദം ബിരിയാണി ഭയങ്കര ടേസ്റ്റുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ കഴിക്കാൻ വരുന്നത് ദം ബിരിയാണി കഴിക്കാനായിട്ടാണ് അതുകൊണ്ടുതന്നെ എനിക്കറിയാം ഏറ്റവു കൂടുതൽ ഓഡറ് കിട്ടുന്നത് ദം ബിരിയാണിയ്ക്കാണ് പക്ഷേ ഇപ്പോൾ എന്തോ ബിരിയാണി കഴിക്കാനുള്ള മൂഡില്ല ഇപ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാനുള്ള ഒരു മൂഡാണുള്ളത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അപ്പോൾ അത് എടുത്തോളൂ കേട്ടോ